ഹലോ സാർ ഞാനൊരല്പം മുന്നേ പിസ്സ ഡെലിവറി ഓർഡർ ഡെലിവെറിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരരമണിക്കൂർ മുന്നെ അവർ ഡെലിവറി ഓർഡറും കൊണ്ടുവന്നു പക്ഷേ ഒരു വളരെ മോശമായിട്ടാണ് ഡെലിവറി ബോയ് നമ്മളോട് ബിഹേവ് ചെയ്തത് പിന്നെ എന്താ പറയുക നമ്മൾ ചോദിക്കുന്നതിനൊന്നുമല്ല മറുപടി പറയുന്നത് അവർ ഭയങ്കര എന്തോ അവരെ പ്രോബ്ലെംസ് നമ്മളോടു തീർക്കുന്നതാണോ എന്താണെന്നറിയില്ല വളരെ ഹാർഷായിട്ടാണ് അവർ നമ്മളോട് ബിഹേവ് ചെയ്തത് പിന്നെ അതൊന്നു കംപ്ലയിൻ്റ് ചെയ്യണം എന്ന് തോന്നിയപ്പോൾ വിളിച്ചതാണ് അവരോടു നമ്മൾ നോർമലിയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചത് അവരപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് അതിലെന്തായാലും വളരേ വളരെ മോശമാണ് നമ്മൾ കസ്റ്റമേഴ്സ് ഒരു കാര്യം ഓർഡർ ചെയ്തിട്ട് അത് കൊണ്ടുത്തരുമ്പോൾ ഇത്ര മോശമായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുകയെന്നു പറയുമ്പോൾ നമ്മൾക്കത് റിപ്പീറ്റ് എഗൈൻ വീണ്ടും ഓർഡർ ചെയ്യാൻ തോന്നുകയില്ലല്ലോ പിന്നെന്താ പറയുക അത്രയും അവരോടു കാര്യങ്ങൾ ഞങ്ങൾ നോർമലി കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ അവർ ഇനി അവരെ പേഴ്സണലി ആയിട്ടുള്ള പ്രോബ്ലം കൊണ്ടാണോന്നറിയില്ല വളരെ മോശമായിട്ടാണ് നമ്മളോടു ബിഹേവ് ചെയ്തത് അപ്പോൾ അതൊന്നു കംപ്ലയിൻ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ്